നടുവേദന ശമിപ്പിക്കാൻ ഇപ്പം നാട്ടുവൈദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിവിടെ ഒരു അയ്യപ്പൻ വൈദ്യരുണ്ട് അപ്പം അയാളുടെയടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നടുവേദനയൊക്കെ കുറെയുമെന്നാണ് പറയുന്നത് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പത്തുദിവസത്തെ പത്തുപതിനൊന്ന് ദിവസത്തെ എന്തോ ഒറ്റമൂലി എന്തോ മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ നടുവേദന കുറയും എന്ന് പറയും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ നാട്ടുവൈദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉഴിച്ചിലാണ് അതായത് ഈ കർക്കിടകമാസത്തിലൊക്കെ എത്രയോ ദിവസം പത്തുപതിനൊന്ന് ദിവസം എങ്ങാനും ഉഴിച്ചിൽ നല്ലോണം നടത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നടുവേദന ഒന്നും ഉണ്ടാവില്ല ഈ പ്രസവാനന്തര ശേഷമുള്ള നടുവേദനക്കൊക്കെ അത് നല്ലതാണെന്ന് പറയും പിന്നെ പ്രസവ പിന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ